ബസ്സ് എവിടെ എത്തീന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഗീതിക

ഞങ്ങൾ ഇവിടെ പിന്നെ മാനന്തവാടി എത്താനായി

അല്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്തതല്ലെ അയ്യോ എനിക്ക് അർജൻറ്റ് ആയിട്ട് എത്താൻ വേണ്ടിയായിരുന്നു അപ്പം ബസ്സിൻ്റെ ടൈമ് കറക്റ്റ് അല്ലേന്ന് വിചാരിച്ചിട്ടാണ് വേഗം പതിനഞ്ച് മിനിറ്റാകും അല്ലെ അത് നമുക്ക് അങ്ങനെ എന്നാൽ നമ്മൾ അത് അഥവ ബസ്സിൽ കയറും നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുമോ അങ്ങനെ എന്തേലും ഉണ്ടോ

ആണോ ഇനിയും കുറെ ടൈം ആവോ ഓ പതിനഞ്ച് മിനിറ്റ്ന്ന് പറഞ്ഞിട്ട് ഇപ്പം അരമണിക്കൂർ ആയി

എന്നാലും കറക്റ്റ് ഏകദേശം ഒരു ടൈം ഒന്ന് പറയാമോ എട്ടര ആയുള്ളൂ അല്ലേ അപ്പം നമ്മൾ കോഴിക്കോട് എത്ര മണിയാകുമ്പം എത്തും മൂന്ന് മണിക്കൂർ അല്ലേ എട്ടരയ്ക്ക് കയറിയാലാണോ പന്ത്രണ്ട് മണിയാവും അല്ലേ അപ്പം ഇപ്പം എവിടുന്നാ ബ്രേക് ഡൗൺ ആയത് ഓക്കെ എന്നാൽ ഞാൻ എതെങ്കിലും വണ്ടി കിട്ടിയാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും എന്നാൽ ഓക്കെ ഓക്കെ